ഹലോ ഞാൻ സരിത ഇത് പിന്നെ ഇല്ലേ നമ്മളെ വീട്ടിൽ മറ്റന്നാൾ ഫംഗ്ഷൻ ഉണ്ടല്ലേപ്പാ അപ്പോൾ നമ്മൾ കുറച്ച് സ്വർണ്ണം മേടിക്കണം എന്ന് ഉണ്ട് അപ്പോൾ ആ അത് ഏടുന്ന് വാങ്ങിയെങ്കിൽ നല്ലത് നിങ്ങൾ വാങ്ങീനോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത് ആ അപ്പോൾ ആ ബിന്ദു അല്ലേ അത് തന്നെ അത് സിറ്റി ഗോൾഡ് ആ ബിന്ദുവിൽ നല്ല സെലക്ഷൻ അല്ലേ അത് തന്നെ മറ്റേ മുത്ത് മറ്റേ മുല്ലപ്പൂ അത് എല്ലാം നിങ്ങൾ വാങ്ങിയത് ഉണ്ടോ അങ്ങനെ നല്ലത് ഉണ്ടോ അത് മുല്ലപ്പൂവിൻ്റെ മാല എല്ലാം നല്ല ആ പിന്നെ അതെ അല്ലേ അപ്പോൾ ആ നല്ല ഡിസൈന് ആ ആ ബിന്ദുവിൽ പോയാൽ നല്ല സെലക്ഷൻ കിട്ടും അല്ലേ തന്നെ അപ്പോൾ നിങ്ങൾ വരുന്നോ ഇപ്പം വാങ്ങാൻ പോവുമ്പോൾ ആ നിങ്ങൾ വന്നെങ്കിൽ നമ്മൾക്ക് സെലക്ഷൻ ആക്കിയിട്ട് എടുക്കാമല്ലേ ഇപ്പോൾ ഞാൻ ആ അതെ ആ ക്യാഷോ ഗൂഗിളാ അങ്ങനെ എന്തെങ്കിലും ആക്കറിഞ്ഞിട്ട്ണ്ട് ഇപ്പോൾ അങ്ങനെ ആ കുറേ ഒന്നും വാങ്ങുന്നില്ല ഇല്ലപ്പാ കുറേ ഒന്നും ഇല്ല എന്നാലും കുറച്ച് വാങ്ങണ്ടേ നമ്മളെ വീട്ടിൽ ഫംഗ്ഷൻ ആവുമ്പോൾ നമ്മളെ വീട്ടിൽ പരിപാടി ആവുമ്പോൾ കുറച്ച് വേണ്ടേ അങ്ങനെ ആ കുറച്ച് സാധനം മേടിക്കാന്നുണ്ട് നമ്മൾക്ക് ഇപ്പോൾ അറിവ് ആ ആ പെണ്ണ് പെണ്ണ് ആ ആ അപ്പോൾ കുറച്ച് അധികം വേണ്ടേ ആ അപ്പോൾ കുറച്ച് വാങ്ങണം അപ്പോൾ പെണ്ണാവുമ്പോൾ കുറച്ച് ഡിസൈൻ എല്ലാം വേണ്ടേ ഇങ്ങനെ വാങ്ങിയിട്ട് കൊണം ഇല്ല അല്ലേ അങ്ങനെ അത് തന്നെ ആ അത് തന്നെ ഷോ മാല ആ പിന്നെ ചെയിന് വാങ്ങണം ആ അങ്ങനത്തെ എല്ലാം വാങ്ങാൻ അപ്പോൾ അതിനെ അതിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾ ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ ആരും ഇല്ല അപ്പോൾ നിങ്ങൾ വരുമെങ്കിൽ നിങ്ങളെ കൂട്ടിയിട്ട് പോവാമെന്നുണ്ട് അതെ ആ വളകൾ ആ രണ്ടും വാങ്ങണം ആ വളയും വേണം കൈ ചെയിനും വേണം ആ പിന്നെ അതിനെല്ലാം ആയിട്ട് നിങ്ങളെ കൂട്ടാർന്ന്ഞ്ഞിറ്റ് നിങ്ങൾ ചോദിച്ചത് ആ അതും വാങ്ങണം മോതിരം വാങ്ങാനുണ്ട് ആ കാല് ആ അത് വാങ്ങണം ആ പാദസരം വാങ്ങണം ആ അപ്പോൾ ആവും എന്നാലും കുറച്ച് ആ നമ്മൾക്ക് ഇപ്പോൾ നല്ല സെലക്ഷൻ കിട്ടണ്ടേ അപ്പോൾ ഏത് പീടികയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ആ ഇപ്പോൾ അതും ഉണ്ടല്ലോ കാസർഗോഡ് ആവുമ്പോൾ അതും വേണ്ടേ അത് തന്നെ ആ ആ അതെ ആ അതെ മാം വെള്ളി അല്ലേ യൂസ് ആക്കൽ അതി ആ ആ അപ്പോൾ നമ്മൾക്ക് അത് വെള്ളിൻ്റെ ഇത് ആക്കാം അല്ലെങ്കിൽ അതൊക്കെ പിള്ളേരെ ഇഷ്ടം അല്ലേ ഇപ്പോൾ പിള്ളേർക്ക് സ്വർണ്ണം ആയി വേണമെന്ന് ഉണ്ടെങ്കിൽ സ്വർണ്ണം വാങ്ങാം അല്ലെങ്കിൽ വെള്ളിയിൽ അഡ്ജസ്റ്റ് ആക്കാം അങ്ങനെ

അതെ അല്ലേ അപ്പോൾ ആ നിങ്ങക്കമ്പോ അറിയും അല്ലേ അങ്ങനെ ഞാൻ നിങ്ങളെ വിളിച്ചത് ആ വരുന്നുണ്ട് നിങ്ങൾ ഫ്രീ ആവുമ്പോൾ പറഞ്ഞാൽ മതി എന്നാൽ നമ്മൾക്ക് പോവാം നമ്മൾക്ക് തിരക്ക് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് മാലയിൽ മൂന്ന് മാല മേടിക്കണ്ടേ ആ ഒരു നെക്ലേസ് ഒരു മുല്ലമൊട്ട് ഒരു ഷോ മാല ആ അതെ അത് ഏതെങ്കിലും ഒന്ന് വാങ്ങാം കാശിമാല ഷോ മാല അങ്ങനെ എന്തെങ്കിലും ഒന്ന് വള ഒരു അഞ്ച് എണ്ണം വാങ്ങാം എന്നുണ്ട് ആ ആ ഇല്ലപ്പാ അഞ്ച് വള എടുക്കാമെന്ന് ആ ആ അഞ്ച് വള ആ അതെ അതെ പിന്നെ കുറച്ച് എടുത്തോ ആ ശരി ആ ഏഹ് നിങ്ങൾ ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ മതി ആ ശരി ആ